ഇന്ത്യയിലെ ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് റോഡ്കളൊക്കെ ഇപ്പോൾ നല്ല മെച്ചപ്പെടുത്തിയത് കാരണം വണ്ടികൾ നമുക്ക് അറിയാം ദിവസേന വണ്ടികൾ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ടെങ്കില് മൂന്ന് പേര്ക്കും വണ്ടിയുണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഒരു റോഡിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വണ്ടികളുടെ ബഹളമാണ് കാൽനട നട ക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ പല വെല്ലുവിളികൾ നമുക്ക് പക്ഷേ വണ്ടിയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ പെട്രോളിൻറ്റെയും ഡീസലിൻറ്റെയും വിലവർധനയാണ് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും വണ്ടികൾ കൂടുന്നത് അനുസരിച്ച് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയും വർധിക്കുന്നുണ്ട് അതിന് നമ്മൾ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള രീതി എന്തെങ്കിലും കണ്ട് പിടിക്കേണ്ടതാണ് എല്ലാ വീട്ടിലും ഇന്നത്തെ അത്യാവശ്യം കാര്യമാണ് വണ്ടി വേണം എന്നുള്ളത് റോഡ് റോഡിൽ നമ്മൾ സംയമനം പാലിച്ച് വണ്ടി ഓടിക്കുക സ്പീഡ് കൂട്ടാതെ മാക്സിമം സ്പീഡിൽ പോകാനേക്കൊണ്ട് നോക്കണം